ചേച്ചി നമസ്കാരം ആ ഞാന് പുതിയ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അപ്പം അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് ആണ് ആ ഏഹ് ഞാൻ ഇതിന് മുമ്പ് ഇൻഷുറൻസ് എടുത്തിട്ട് ഉണ്ടോ ആ ഓക്കെ ഞാന് പുതിയ പ്ലാൻ നമ്മുടെ കമ്പനിയുടെ പുതിയ ഒര് പ്ലാൻ ഉണ്ട് അപ്പോൾ ജനറൽ ഇൻഷുറൻസ് ആണ് സാധാരണ നമുക്ക് വരണത് ഒരു അതായത് ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് പിന്നെ ആക്സിഡൻറ്റ് അങ്ങനെ ഒക്കെ ആണല്ലോ വരണത് അപ്പം നമ്മള് മൊത്തത്തില് കവറിംഗ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അത് ഇപ്പോൾ ആ അതായത് ഇപ്പോൾ നമ്മള് പതിനഞ്ച് വർഷത്തേക്ക് ഉള്ള ഒരു പ്ലാൻ ആണ് നമ്മള് ഉദ്ദേശിക്കണത് അതില് വന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ എമൗണ്ട് വന്നിട്ട് ഒരു കോടിയുടെ ഇത് ആണ് വരുന്നത്

ഒരു കോടി ആണ് നമ്മുടെ അതിൻ്റെ ഇപ്പം നമുക്ക് ഇതില് കവറിംഗ് വരുന്നത് നമ്മുടെ ഹെൽത്ത് വരുന്നുണ്ട് അതുപോലെ ആക്സിഡൻറ്റ് കേസ് വരുന്നുണ്ട് നമ്മക്ക് കവറ് ചെയ്യാൻ പറ്റണത് ആ അതും വരും അതും പറ്റും പറ്റും അതിനും പറ്റും അതാ ഞാൻ പറഞ്ഞ ഹെൽത്തും ആക്സിഡൻറ്റും മൊത്തം അതായത് ഇപ്പം നിങ്ങളുടെ ഇപ്പം നമുക്ക് വലിയ ആക്സിഡൻറ്റ് കേസുകള് വരാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പരിക്ക് ഇപ്പോൾ വണ്ടി വീണ് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആയിപ്പോയി ജസ്റ്റ് ഹെഡ് ലൈറ്റ് പൊട്ടി അല്ലെങ്കിൽ മറ്റേ മിററ് മാറ്റണം അങ്ങനെ ഉള്ള ക്ലെയിമ് അടക്കം നമ്മള് ഇതില് എടുക്കുന്ന ആയിരിക്കും

മന്ത്ലി അല്ല നമുക്ക് സിക്സ് മന്ത്സിന് ആണ് പേയ്മെൻറ്റ് വരുന്നത് സിക്സ് മന്ത്സില്

നമ്മള് സിക്സ് മന്ത്സില് വന്നിട്ട് സെവെൻറ്റി ഫൈവ് തൗസൻഡ് അടയ്ക്കണം ആ അങ്ങനെ പതിനഞ്ച് കൊല്ലം

അങ്ങനെ വരുന്നുണ്ട് അത് ആണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് സാധാരണ വണ്ടീൻ്റെ ക്ലെയിമുകളോ ഹെഡ് ലൈറ്റ് മിററോ അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ അതിന് നമുക്ക് ഇതാക്കാം അല്ല അഥവാ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് മൊത്തം ഇപ്പോൾ ചേച്ചി എടുക്കുക ആണെങ്കിലും ചേച്ചീടെ ഹസ്ബൻഡ് മക്കള് ഇപ്പോ അച്ഛൻ അമ്മ എല്ലാവർക്കും നമ്മളെ അതില് ഇൻക്ലൂഡഡ് ആണ് ആ ഇപ്പോൾ അതായത് അവരെ ഒക്കെ ഇപ്പോൾ ചേച്ചീടെ പേരിൽ ആണെങ്കിലും അവര് ഒക്കെ എന്തേലും പ്രശ്നം വന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരിക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓ എല്ലാ കാര്യത്തിനും നമുക്ക് മൊത്തം ടോട്ടൽ കവറേജ് ആണേ പാക്കേജ് വരുന്നത് മാര്യേജ് ഒന്നും ഇതില് വരില്ല ചേച്ചി അത് നമുക്ക് ഇൻഷുറൻസ് മാര്യേജും ആയിട്ട് വരില്ല ഇതുപോലെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമെ നമുക്ക് അത് പറയാൻ പറ്റൂള്ളൂ

ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മള് ഫസ്റ്റ് എമൗണ്ട് എപ്പഴാണ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റണത് പറഞ്ഞാൽ അത് കാരണം നമ്മള് അപ്പം വരാം അതില് ഇപ്പം നിങ്ങള പാൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ പിന്നെ ബാങ്ക് പാസ്ബുക്ക് അതിൻ്റെ ഒരു കോപ്പിയും എല്ലാത്തിൻ്റെയും കോപ്പി മാത്രം മതി പിന്നെ ഒരു ഫോമ് ഉണ്ട് അത് ഞാൻ കൊണ്ടുവരാം എപ്പഴാണ് വരണ്ടത് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ നമ്മളത് അതും കൊണ്ട് വരാം ആ ചേച്ചി ഞാൻ നമ്പറ് തരാം എന്നെ വിളിച്ചാൽ മതി ഞാൻ വീട്ടിലേക്ക് വരാം ആ ഓക്കെ താങ്ക്യൂ ചേച്ചി